ഡിജിറ്റൽ ചിത്ര രചനയ്ക്ക് വേണ്ടിട്ട് നമുക്ക് പലതരം ആപ്പുകൾ സോഫ്റ്റ്വെയർ ഉപകരണങ്ങളെ അല്ലെങ്കിൽ ആപ്പുകൾ ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഡിജിറ്റൽ ആർട്ടിനെ കഴിഞ്ഞും ഡിജിറ്റൽ ചിത്രരചന കഴിയും പരമ്പരാഗത ചിത്രരചന ആണ് കൂടുതലായിട്ട് ഞാനിഷ്ടപ്പെടുന്നത് നമുക്ക് ഡിജിറ്റൽ ചിത്രരചനയിൽ എന്നു പറയുമ്പത്തേനും നമുക്ക് ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ജാമിതീയ രൂപങ്ങൾ ഒക്കെ വരയ്ക്കാനായിട്ട് സാധിക്കും അതിൽ ജാമിതീയ രൂപങ്ങൾ ആ ഷേപ്പ്സും അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും അല്ലാണ്ട് തന്നെ നമുക്ക് ചിത്രം വരച്ച് കളറ് നൽക അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിലെ മുതൽ തന്നെ സ്കൂളുകളിൽ പഠിച്ചു വരാറുണ്ട് ചിത്രം വരച്ച് കളർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ ഈ ജിയോജിബ്രയിൽ എന്താണ് നമ്മുടെ ഈ ജാമിതീയ ജോമെട്രി ഷേപ്സ് ഒക്കെ വരയ്ക്കാൻ ഒക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇതിനെ കഴിഞ്ഞും നമ്മുടെ പരമ്പരാഗത ചിത്രരചന പരമ്പരാഗത ചിത്രരചന എന്ന് പറയുമ്പഴത്തേനും നമ്മൾ വസ്തുക്കളുപയോഗിച്ച് വാങ്ങിക്കുന്ന ഇച്ചിരി കോസ്റ്റിലിയാണ് പരമ്പരാഗത ചിത്രരചന എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അതിൽ നമുക്ക് കോസ്റ്റിലിയാണ് നമ്മൾ പൈസ കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരും ചിത്രം വരയ്ന്നതിനുവേണ്ടിട്ടുള്ള കളർ പെൻസിൽ കളർ പെയിൻറ്റ് പെയിൻറ്റ് അതിൻ്റെ ക്യാൻവാസ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും ഇതൊക്കെ നമ്മൾ വാങ്ങിക്കേണ്ടിവരും പണം കൊടുത്ത് വാങ്ങിക്കേണ്ടിവരും അത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് എന്നാൽ ഡിജിറ്റൽ ചിത്രരചനയിലെ ഇവ ഒന്നും ഇവയൊന്നും തന്നെ വരുന്നില്ല നമുക്ക് അങ്ങനത്തെ കോസ്റ്റ്ലി അല്ല നമുക്ക് എന്താണ് ഈസി വേഗത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും കൂടുതൽ എഫക്റ്റീവ് ആണത് അതുപോലെ ടൈം കൺസ്യൂമിങ് ആണ് അതിൽ ഒക്കെ ഡിജിറ്റൽ ചിത്രരചനയാണ് കുറച്ചും കൂടെ നല്ലത് മറ്റേതിൽ നമ്മൾ മറ്റെ പരമ്പരാഗത ചിത്രരചന എന്ന് പറയുമ്പഴത്തേനും നമുക്ക് അത് കളക്ട് നമ്മൾ അത് വയ്ക്കെ കുറച്ച് നാൾ വെച്ചിരിക്കുന്നതിലും എല്ലാത്തിലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്